ബൈക്ക് പരിപാലിക്കുക എന്ന് ഉദ്ദേശിച്ചത് ബൈക്കിൻ്റെ എല്ലാ സാധനങ്ങളും അപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ മാറ്റുക ഓയില് ബ്രേക്ക് ടയറ് ട്യൂബ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ലൈറ്റ് ഇൻഡിക്കേറ്ററ് എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്യുക പിന്നേ ദീർഘത ദീർഘകാല യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ തന്നെയും എന്തായാലും വണ്ടി ഒന്ന് സർവീസിൽ കയറ്റുക പിന്നെ നല്ല ഒരു വർക്ഷോപ്പിൽ കൊണ്ടു പോയി എങ്ങനെ ഉണ്ടെന്ന് നോക്കുക പിന്നെ നമുക്ക് ആണെങ്കിൽ കുറേ കാര്യങ്ങൾ നോക്കാൻ പറ്റും അതിൻ്റെ ടയറ് തീർന്നിട്ടുണ്ടോ എന്നുള്ളതും ബ്രേക്കൊക്കെ എങ്ങനെ ആണെന്നും നമുക്ക് എപ്പോഴും കൊണ്ടു നടക്കുന്ന വണ്ടി നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും ബ്രേക്ക് ക്ലച്ച് ഗീറ് ടയറ് ലൈറ്റ് അതൊക്കെ പക്ക ആണോ എന്ന് നമുക്ക് നോക്കാം പിന്നെ നമുക്ക് ഇതേ ഇത് തന്നെയാണ് നമുക്ക് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോസ്റ്റും നമുക്ക് വരുന്നത് ഇത് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ടയറ് മാറ്റേണ്ടതും ക്ലച്ചും ഓയിലും അത് തന്നെയാണ് നമ്മളെ കോസ്റ്റും